നമ്മുടെ ഗ്രാമത്തിൽ ജലസേചനത്തിനുള്ള സൗകര്യങ്ങളുണ്ട് കാരണം കൂടുതൽ പണ്ടുകാലം തൊട്ടേ പുഴ കിണർ കുളം തോടുകൾ അരുവികൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് കൃഷി നടത്താൻ വേണ്ടിയിട്ടുള്ള വെള്ളം കണ്ടെത്തിക്കൊണ്ടിരുന്നത് ഇപ്പം ആൾക്കാരുടെ കൂടുതലായിട്ടുള്ള പ്ലാസ്റ്റിക്ക് ഉപയോഗവും മാലിന്യങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയുന്നതും എന്താ പറയുക വെള്ളം ഭൂമിയിലേക്കിറങ്ങുന്നത് വയലുകളിൽ നിന്നും ആ മലകളിൽ നിന്നുമൊക്കെയാണ് അപ്പം കൂടുതലായിട്ട് വയലുകൾ നികത്തിയും മലകളിടിച്ച് നിരത്തിയും കെട്ടിടങ്ങളും കാര്യങ്ങളും സ്ഥാപിക്കുന്നതോടുകൂടി എന്താക്കി നമ്മൾക്ക് ജലം ഭൂമിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥ വന്നു ഇങ്ങനെ വന്നത് കൊണ്ടുതന്നെ നമ്മുടെ കൂടുതലും വിളകളൊക്കെ നശിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഒക്കെയെന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ അവനവന് ആവശ്യം ഉള്ളത് കൾട്ടിവേറ്റ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പം പുറത്തുപോയി നിന്ന് പണിയെടുത്ത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഏതൊരു വിളയാണെങ്കിലും അതിനേറ്റവും ആവശ്യം ഉള്ളൊരു സാധനം വെള്ളമാണ് അതിപ്പം നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത് മനുഷ്യർക്ക് കുടിക്കാനുള്ള സാധനം പോലും കിട്ടാനില്ല ചിലർ അത് പൈസ കൊടുത്തുവാങ്ങുന്നു അത്തരത്തിലുള്ള അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്